ഇന്നെനിക്ക് പറയാനുള്ളത് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങി കൊതുക് പരത്തുന്ന രോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നതിനെക്കുറിച്ചാണ് കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഇതു പോലെയുള്ള രോഗങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡെങ്കി മലേറിയ തുടങ്ങിയ രോഗങ്ങൾ കൊതുകാണല്ലോ പരത്തുന്നത് അതിനുള്ള വഴി നമ്മളെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ് ആ രോഗങ്ങൾ ഉണ്ടാകാനും പിടിപ്പെടാനും ഇടയാക്കി കൊടുക്കുന്നതു കാരണം കെട്ടിക്കിടക്കുന്ന കുറേ വെള്ളം മലിനമായ ജലം പിന്നെ ചിരട്ടയുടെ തൊണ്ട് അങ്ങനെ കുറേ പ്ലാസ്റ്റിക് ഇതിൻ്റെയൊക്കെ മണ്ടയിൽ പിന്നെ പാ അതിനെ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള കുറേ വസ്തുക്കളിൽ ചെടിച്ചട്ടികളിൽ വേണ്ടാത്ത ചെടിച്ചട്ടികളിൽ അങ്ങനെയീ കോളേജ് സ്കൂൾ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും നോക്കി കാണാം അവിടെ ഇവിടെയൊക്കെയായിട്ടും വേസ്റ്റായിട്ടുള്ള കുറേ വസ്തുക്കൾ കാണാം അതിലൊക്കെ വെള്ളം മലിനമായിട്ടുള്ള വെള്ളം കൊതുകിനിച്ചിരി വെള്ളം മതി ഈ പറയുന്ന കടലിലെ വെള്ളം കായലിലെ വെള്ളം തോട്ടിലെ വെള്ളം ഒന്നും വേണ്ട ഈ വേണ്ടാ ആർക്കും വേണ്ടാത്ത സൈഡിൽ കിടക്കുന്ന കുറച്ച് വെള്ളം ഇ പറഞ്ഞ് ഇപ്പം പറഞ്ഞില്ലേ അതു പോലെയുള്ള കുറേ വസ്തുക്കളിനകത്തു കിടക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ ഇട്ട് മുട്ട ഈ കൊതുക് മുട്ട ഇട്ട് പെരുകും പെരുകി ഈ കൊതുക് മുട്ട നശിപ്പിക്കാനായിട്ട് മറ്റേ സർക്കാർ പദ്ധതി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഗപ്പിക്കുഞ്ഞുങ്ങളെ വളർത്തി അതിന് മുട്ട അല്ലെങ്കിൽ കൊതുകുകളുടെ കൊതുകുകളുടെ തുരത്താനുള്ള ഒരു മാർഗ്ഗം അങ്ങനെ നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെയവിടം വരെ എത്താനാണ് ഈ ചിരട്ടക്കകത്തൊക്കെ ഗപ്പീനെ വളർത്താൻ പറ്റുമോ മനുഷ്യർ തന്നെയിതൊക്കെ നോക്കണം ഇവർ ഇതൊക്കെ നോക്കി ഈ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ മറച്ചു കളഞ്ഞ് അങ്ങനെ ഓരോ പരിപാടികൾ നമ്മളായിട്ട് തന്നെ ഓരോ എന്തെങ്കിലും തരത്തിലുള്ള അസു അസുഖങ്ങളുണ്ടാകും നമ്മൾ വരുത്തി വെക്കലിൽ നിന്നുള്ളൊരു ഉറപ്പുള്ള ഉറപ്പുണ്ടാകണം നമ്മുടെ ലൈഫിൽ എപ്പോഴും പിന്നെ നമ്മളിപ്പം കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്താണ് മറിച്ചു കളയാനിടയാക്കാൻ പിന്നെ ഫുഡ് ഫുഡ് കഴിക്കുമ്പത്തിന് അതിൻ്റെ ഇതായ രീതിയിൽ പഴക്കമുള്ളതാണോ ഇപ്പം ഈച്ച പോലത്തുള്ള ആ ജീവികൾ വന്നിരിക്കുമ്പം അതിനൊക്കെ അതൊക്കെ പല സ്ഥലത്തു നിന്നൊക്കെ പല സ്ഥലത്തു നിന്ന് എവിടെ നിന്നൊക്കെയാണോ ഇവന്മാരൊക്കെ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഏതിനകതൊക്കെ ഇവൻ വന്നിരുന്നിട്ടാണോ വരുന്നതെന്നു നമുക്കറിയത്തില്ല കൊതുക് കൊതുകെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഈ കൊതുക് ഇപ്പം ഈ അസുഖം ഡെങ്കി മലേറിയ എന്നുള്ള അസുഖം ബാധിക്കപ്പെട്ട ഒരാളുടെ ശരീരത്തിൽ നിന്നു പോയിട്ടീ കൊതുക് പോയിട്ട് കുത്തുമെന്നേ കുത്തിട്ട് ഇവന്മരാണെങ്കിൽ ചോരയും കുടിക്കും അപ്പം അതേ കൊതുക് വന്നിരുന്നും പിടിക്കാതിരുന്നു മനുഷ്യൻ്റെയടുത്തും മനുഷ്യൻ്റെ അടുത്തു വന്നും കുത്തും ഈ സാഹചര്യത്തിൽ ആ അസുഖം ആപ്റ്റായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഈ കൊതുക് കാരണം നമ്മളിലോട്ട് എത്തുന്നു അങ്ങനെ ഇത് ചെയ്യും പോലെ നിർത്താൻ പണ്ടൊക്കെ ഈ ഈ മരുന്നൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് എന്ത് എൻ്റെ പോന്നോ എത്ര മാത്രം മരണങ്ങൾ എത്ര മാത്രം സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് എത്ര മാത്രം മരണം സംഭവിച്ചു ഏ അങ്ങനെ എന്താണ് പറയുക അങ്ങനെ മരണം സംഭവിച്ചു കണ്ടതാണ് കണ്ടതാണ് നമ്മൾ മനുഷ്യരെല്ലാവരും എന്നിട്ടും എന്നിട്ടും കാണാത്ത പോലെ ഇത് ഇത്രക്ക് ഇത്രക്കുള്ളൂ ഈ അസുഖത്തിനൊരു സൊല്യൂഷൻ കണ്ടു പിടിച്ചു പോയല്ലോ അപ്പം ഇതു വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളൊരു ഉറപ്പുള്ളതു കൊണ്ടാണ് കാണാതെ പോകുന്ന ഈ ഈ വക കാര്യങ്ങൾ കാണാതെ പോകുമെന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏ ഇപ്പം ഞാനാണെങ്കിലിപ്പം ചുമ്മാതാണെങ്കിലും കുറച്ച് വെള്ളം ഈ കൊതുക് മുട്ടയിട്ട് അല്ലെങ്കിൽ ചിരട്ടക്കകത്തെ വെള്ളം വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കെട അവിടെ അവിടെ കിടന്ന് നമ കൊതു മുട്ടയിട്ട് പെറ്റു പെരുകി എന്നാ പിന്നെ മലേറിയ അല്ലെങ്കിൽ ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ വരുത്തട്ടെ എന്നുള്ള മൈൻഡിലല്ലേ കുറച്ച് ഇന്തൊക്കെ കയ്യിലുള്ളതു കൊണ്ട് അത്യാവശ്യം ആ മൈൻഡിലല്ലായിരിക്കും ഇപ്പം കൊതുവിനെ ബിൽഡ് ചെയ്ത് രോഗം വരുത്തണമെന്നുള്ള മൈൻഡല്ലായിരിക്കും അത് കാണുമ്പം വെള്ളം കിടക്കുന്നത് കാണുമ്പത്തിനൊരു ചെറിയൊരു അസ്വസ്ഥത കാണും ചുമ്മാ കാലമുണ്ട് തഴ തൊഴിച്ചങ്ങ് നമ്മൾ നശിപ്പിച്ചു കളയും അപ്പം അറിയാതെ പോലും നമ്മളത് പല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലൈഫിലൊരു ഇപ്പം ഒരാൾക്ക് ഒരു വ്യക്തിക്കായിരിക്കും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നമ്മൾ കാരണം ഈ ഒരു അസുഖം വരുത്തി വെക്കാതിരിക്കും എന്നുള്ളൊരു എന്നൊരു സന്തോഷം നമുക്കില്ലേ പിന്നെയത് പിടിപെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് നമ്മുടെ ശരീരത്തിലെ അവസ്ഥ നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് ബാധിക്കും അങ്ങനെ കുറേ അവസ്ഥ അറിയാമല്ലോ അസുഖം വന്നു പോയിട്ടുണ്ടെങ്കിൽ ആശുപത്രി കേസ് പിടിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് വിഷയമാണ് ഇപ്പം സാധാരണക്കാർക്ക് കിടക്കുകയാണെങ്കിൽ സംഭവിക്കുന്നെങ്കിൽ അറിയാമല്ലോ എവിടുന്നേലൊക്കെ കട കടവും മേടിച്ച് പണ്ടാരമടങ്ങി ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി രോഗമാണെ മാറത്തുമില്ല എഗൈൻ എഗൈൻ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മുടെ ഈ നാടും ഒക്കെ പോകുന്നേ അതൊരു പരിധി വരെ നമ്മുടെ സർക്കാർ ഇങ്ങനത്തേക്കുള്ള ലിമിറ്റേഷൻസ് നമുക്ക് തരും നമുക്കുള്ള ലിമിറ്റേഷൻസല്ല നമുക്കുള്ള മോട്ടിവേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യരുത് ഇങ്ങനെയൊക്കെ ചെയ് അതിനാണല്ലോ നമുക്ക് വേണ്ടി ഇവിടെ കുറേ എന്താ ക്ലിനിക്കുകളും ലാബോററ്ററികളും അങ്ങനെ കുറേ കുറേ ഗാങ്ങ് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ആ ഒരു അവരെയൊക്കെ മാക്സിമം അവർ പറയുന്നതും ശരിയാണ് ആ റിജക്റ്റ് ചെയ്യാതെ മാക്സിമം നോക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതു പോലെയുള്ള കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നാണ് എനിക്ക് ടോപ്പിക്കിനെ കുറിച്ച് എൻറ്റേതായ കാര്യങ്ങളിൽ ചെറുതായിട്ട് പറയാൻ സാധിക്കുന്നുള്ളു എന്ന് ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്ക്കാരം ജയ്ഹിന്ദ്